വയനാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തില് സംരക്ഷണം ഒരു നല്ലൊരു ആശുപത്രിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകട കേസോ എന്ത് വലിയ കേസ് വന്നാലും ഇവിടെ ഒരു ഹോസ്പിറ്റലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുക്കുന്നില്ല നമുക്ക് അവിടുന്ന് തന്നെ പറയുന്നത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളു എന്നാണ് പറയുന്നത് നമുക്കിപ്പളാണ് ചെറുതായിട്ട് മാനന്തവാടി ഗവൺമെൻ്റെ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ആക്കിയിട്ടുള്ളത് അതുകൂടാണ്ട് തന്നെ മേപ്പാടി വിംസ് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നത് ഇപ്പഴാണ് അവിടെയാണെങ്കിലും നമുക്ക് വലിയ വലിയ കേസുകൾ എടുക്കുന്നില്ല വിംസ് മൂപ്പൻസിലാണെങ്കിലും പ്രൈവറ്റാണ് നമുക്ക് റേറ്റ് കൂടുതല് ഗവൺമെന്റ്റിലാണെങ്കിലും നമുക്ക് അവിടെ ഫെസിലിറ്റീസ് ഇല്ല നമുക്ക് അവര് പറ അവര് തന്നെ പറഞ്ഞ് നമ്മളിവിടുന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോയിക്കോളു അവിടെ ചെന്ന് എടുക്കാൻ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തില് ഫെസിലിറ്റീസ് വയനാട്ടില് കുറവാണ് നമുക്കതനുസരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് താഴത്തേക്ക് എത്താനുള്ള താമസം ബ്ലോക്ക് കാര്യങ്ങളെല്ലാം വന്ന് ആരോഗ്യ സ്ഥിതി ഭയങ്കര മോശമായിട്ടാണ് വരുന്നത് നമുക്കിവിടൊരു ഹോസ്പിറ്റല് നല്ലതില്ല നമുക്ക് ഒരു ഫെസിലിറ്റീസ് ഇല്ല